ഹലോ യേസ് പറഞ്ഞോളു എന്താണ് വിശേഷം ആ ആ മഴ ചെറുതായിട്ടുണ്ട് വലിയ കുഴപ്പം ഇല്ല

ആ അവിടെ വേയ്സ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്തായിരുന്നു അവിടെ കുറേ സാറിൻ്റെ വീടിൻ്റെ അവിടെ കുറേ വേസ്റ്റ് കിടപ്പുണ്ട് അത് വലിയ നാട്ടുകാർക്ക് വലിയ ശല്യമാണ് എന്നൊക്കെ പറയുന്നു ആ ആ ആ ഓക്കേ ഓക്കെ ഓക്കെ ഓക്കേ ആ ഹാ ഹാ അ ഓക്കേ തീർച്ചയായും എന്നത്തേന് പോവാനാ ആ ആ ആ

ആ തിരുവനന്തപുരത്ത് മലങ്കരയുടെ ഡാനിയേൽച്ചൻ്റെ ഒരു ധ്യാനകേന്ദ്രം ഉണ്ട് അവിടെ ആ അവിടെ നല്ലതാണ് അവിടെ മറ്റ് മറ്റുള്ളയിടത്തെ പോലേ രോഗശാന്തിയും മറ്റും ഒന്നും ഇല്ല ബൈബിൾ പഠിക്കുക നമ്മൾ വിശ്വാസത്തിൽ പുലർത്തുക പുള്ളി അതാണ് ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ട് അത് കൊള്ളാം നല്ലതാണ് ആ അ അ ആ ഇപ്പം ഈ അ ഇപ്പം ഈ അടുത്ത പ്രദേശത്തുള്ളത് പോട്ട ഉണ്ട് ഡിവൈൻ ഉണ്ട് മറ്റ് ധാരാളം ധ്യാനകേന്ദ്രങ്ങളുണ്ട് പക്ഷേ ഇപ്പം ജനങ്ങളിപ്പം ഇഷ്ടപ്പെടുന്നത് ഈ രോഗശാന്തി ഒന്നും ഇല്ലാത്ത രോഗശാന്തിയിലൊക്കെ ആൾക്കാർ ഒരു അവിശ്വാസായി അപ്പം ഈ വചനം പഠിപ്പിക്കുന്നത് കൊണ്ട് ആൾക്കാർക്കെല്ലാം ഇഷ്ടം ഡാനിയേലച്ഛൻ്റെ ഇതാണ് അത് കൂടുതലും മലങ്കരയാന്നെങ്കിലും പുള്ളി കുർബാനയിൽ മൊത്തം പാടുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം സീറോ മലബാറിൻ്റെയാ കൂടുതലും സീറോ മലബാറ് ലാറ്റിന് മലങ്കര ഇത് ചേർന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ നല്ലതാണ് സീറോ മലബാറുകാരാ കൂടുതലും പുള്ളിയുടെ കൺവെൻഷൻ നടത്തുന്നത് ആ മ്മ് താമസിച്ചില്ലാ താമസിക്കാൻ അവിടെ സൗകര്യം ഇല്ല ദിവസവും പോയി വരണം പോയി വരണം പോയി വരണം ആ പോയി വരണം രാവിലെ മുതൽ വൈകീട്ട് വരെ പിന്നെ ആഹാരം ഉണ്ട് താമസിച്ചുള്ളത് അവിടെ ഇല്ല താമസിച്ചുള്ളത് വേണമെങ്കിൽ പോട്ടയോ ഡിവൈൻലോ ഒക്കെ പോകണം ആ അ ആണ് ആണ് ആണ് ആണ് ആ ആ ഓ ഹോ ഹോ ആ ശരിയാണ് താമസിച്ച് അത് എന്നാ മ്മ് അവിടെ ഇപ്പം അങ്ങനെ ഇല്ല അങ്ങനയാണെ പോട്ടയിലെങ്ങാനും പോവണം മ്മ് അങ്ങനാണേ പോട്ടയിലെങ്ങാനും പോവണം പോട്ടയിലോ ഡിവൈനോ ഒക്കെ പോവണം അടുത്ത ഏരിയകളിൽ അതാണ് ഓക്കേ ഓക്കേ ഓക്കേ

ആ ഞാൻ നോക്കാം നമ്മുടെ നമ്മുടെ എൻ്റെയൊരു സുഹൃത്തുണ്ട് ആ എൻ്റെയൊരു സുഹൃത്തുണ്ട് ഞാൻ സുഹൃത്തിനോട് ചോദിച്ചിട്ട് ആ നമ്പര് വാങ്ങിച്ച് നമുക്ക് പോട്ടയിൽ നോക്കാം അ സാറിന് പോട്ട ഇഷ്ടമാണോ ആ ചാലക്കുടി തൃശ്ശൂർ അ ആ അത് തൃശ്ശൂരാണ് ട്രെയ്നേ പോകാം ട്രെയ്നേ പോകാം മ്മ് അവിടെ സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഡിവൈൻ്റെ മുന്നിലാണ് സ്റ്റോപ്പ് ബാക്കിലാണ് സ്റ്റോപ്പ് മ്മ് ഓക്കേ ഞാൻ റെഡിയാവാം ഞാൻ റെഡിയാവാം ഓ ഓ ഓ ഓ ഓക്കേ ഓക്കേ ഓക്കേ ഒരു ഇച്ചിരി സാറിന് സമ്മതമാണെങ്കിൽ ഞാനങ്ങ് ബുക്ക് ചെയ്തേക്കാം പൈസ കൊടുത്തങ്ങ് ബുക്ക് ചെയ്തേക്കാം ആ ഡേറ്റിൽ ഓക്കെ ഓക്കേ ഓക്കെ ഓക്കേ ഓക്കെ ഓക്കേ ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ